അതെ ഇതാര സംസാരിക്കുന്നത് ആ എന്താ മേഡം വിളിച്ചത് ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല ഞാൻ ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല എന്നാ പറയുന്നത് ആ ഈ വീക്കെൻറ്റിൽ ഞാൻ ഫ്രീ ആണ് ആ ഓക്കെ ഓക്കെ ഞാനിനി ശ്രദ്ധിച്ചോളാം